വയനാട് ജില്ലയിലെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപജീവനമാർഗ്ഗമെന്ന് പറയുന്നത് കൂടുതലായിട്ടും കൃഷിയാണ് വയനാട്ടിൽ കൂടുതലാൾക്കാരും കൃഷിയിലേക്കാണ് പോകുന്നത് അതായതിപ്പം ഇഞ്ചി കുരുമുളക് കാപ്പി അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് ഇതൊക്കെ ഇപ്പം ഇപ്പത്തെ ഒരിതില് വെച്ച് മുന്നേറുന്നത് ഇഞ്ചിക്കൃഷിയാണ് അതിനിപ്പം നല്ല മാർക്കറ്റുണ്ട് അവിടുന്ന് കൃഷി ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ അവർക്ക് ഈ വില കൂടുന്ന ടൈമിലാണ് അവര് കൃഷി ചെയ്ത് ഉത്പന്നങ്ങളൊക്കെ വിൽക്കുന്നത് വിലയില്ലാത്ത ടൈമില് ആരും അങ്ങനെ വിൽക്കാൻ നോക്കാറില്ലാ കാരണം നമുക്കതൊരു ലാഭവുമില്ല ഒരു നഷ്ടക്കച്ചവടം പോലെയാണത് സോ അങ്ങനെയാണ് ചെയ്യാറ് പിന്നേ വ്യവസായ സേവനങ്ങളും സ്വയം തൊഴിലൊക്കെ ഒരു സൈഡിക്കൂടെ പോകുന്നുണ്ട് ഒരു ഭാഗം മുഴുവൻ കൃഷിയും എന്നാൽ ഒരു ഭാഗം മുഴുവൻ ഇതൊക്കെയാണ് പിന്നേ എന്താ പറയുക ഇപ്പം തൊഴിലില്ലായ്മ എന്നുപറയുന്നത് വയനാട്ടില് തൊഴിലില്ലായ്മ ഇല്ല കൃഷിയും കൃഷിയും കൊണ്ട് തന്നെ ഉപജീവനമാർഗ്ഗം കൊണ്ട് പോവുന്ന ആൾക്കാരാണ് ഇപ്പം ഉള്ളത് പിന്നെ സ്വയംതൊഴില് ചെയ്യുന്നവരൊക്കെ ഒരുപാടുണ്ട് അതുപോലെത്തന്നെ ഈ സർക്കാർ ജോലികളിലൊക്കെ ആൾക്കാര് ഉൾപ്പെടുന്നുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടുവർഷം മുമ്പാണെങ്കിൽ കൊറോണയക്കെ വ്യാപകമായ ഒര് ഇതായിരുന്നു അപ്പൊൾ കൊറോണ ടൈമിലാർക്കും പണിയിണ്ടായിരുന്നില്ല അന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയില്ലായിരുന്നു അപ്പം ആ ഒരു ടൈമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി സർക്കാർ ജോലിയുള്ളവർക്ക് നല്ലൊരു ലാഭാരുന്നു കാരണം അവർക്ക് ജോലിക്ക് പോവുകയും വേണ്ട ക്യാഷ് കിട്ടുകയും ചെയ്യും അവരുടെ ജീവിതം മുന്നോട്ട് പോവുന്നുമുണ്ടായിരുന്നു പക്ഷേ പാവപ്പെട്ട കൃഷി ചെയ്യുന്നതും കൃഷി ചെയ്യുന്നവരൊക്കെ പാവപ്പെട്ട അങ്ങിനത്തെ ആൾക്കാർക്കൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ആ അവർക്ക് ആണെങ്കിൽ വീട്ടിൽത്തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റില്ല തൊഴിലൊന്നുമില്ല അവർക്കും അപ്പം ക്യാഷും ഇല്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകള് അവര് അഭിന അനുഭവിച്ചിട്ടുണ്ട് അപ്പൊൾ അങ്ങനത്തെ കുറേ പ്രോബ്ലംസൊക്കെയുണ്ട് അതുകൊണ്ട് കൂടുതലും നല്ലത് സർക്കാർ ജോലിയാണ് അതുകൊണ്ടുതന്നെ ആൾക്കാരൊക്കെ കൂടുതലായിട്ടും കിട്ടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്നതൊക്കെ സർക്കാർ ജോലിയിലേക്കാണ് ഇപ്പം പഠിച്ചിറങ്ങുന്ന എല്ലാവരും സർക്കാർ ജോലി കിട്ടണമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടെയാണ് പഠിച്ചിറങ്ങുന്നതൊക്കെ അപ്പം സർക്കാർ തര ജോലിയാണ് കുറച്ചുകൂടെ കൂടുതല് എന്നാലും വയനാട്ടില് കൂടുതലായിട്ടും കൃഷിയാണ് നടക്കുന്നത്